അതെ ആൽഫ ട്രാവൽ ഏജൻസി ആണ് ആരാണ് സംസാരിക്കുന്നത് മാമിൻറ്റെ പേരൊന്നു പറയാമോ മാം എവിടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ എറണാകുളമെന്നു പറയുമ്പോൾ എറണാകുളം അവിടെത്തന്നെ ട്രാവൽ ആയിട്ട് തന്നെ പോകാനോ അതോ ബോട്ട് വള്ളം അങ്ങനെ എന്തേലും ഉദ്ദേശിച്ചാണോ അത് എങ്ങനെയാണു മാം ഉദ്ദേശിക്കുന്നത് ബോട്ട് എറണാകുളം ടൌൺ എറണാകുളം സ്ഥലം ആവുമ്പം ഒരു നമ്മുടെ എന്താ മൺഡ്രോ സോറി മാം നമ്മുടെ മറൈൻ ഡ്രൈവ് പോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ബോട്ടിലൊക്കെ സഞ്ചരിക്കാൻ പറ്റും എത്ര ദിവസത്തേക്കായിരിക്കും മാം ബുക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് മതിയോ നാല് പേരുണ്ടല്ലേ നാല് പേർക്കാവുമ്പോൾ ബോട്ട് കുഴപ്പമില്ല മാം നമുക്ക് ഫിക്സ് ചെയ്യാം മാം എന്നത്തേക്കാണ് പോകുവാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാഴയുണ്ടല്ലേ മക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ മാം അതോ എല്ലാം രണ്ട് പേർ മക്കളുണ്ട് അവർക്ക് എത്ര വയസ്സ് വരുവായിരിക്കും മാം പതിനെട്ടു വയസ്സും ഒരു വയസ്സും മാം നമ്മുടെ പാക്കേജ് എന്നു പറയുമ്പം മറൈൻ ഡ്രൈവ് ഫുൾ ഒരു ദിവസത്തേക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും പിന്നെ പാലസ് ഒക്കെ ഉണ്ട് അവിടെ കാണാൻ അവിടെ നമ്മൾ കയറുന്നതായിരിക്കും അവിടെ കയറണോന്ന് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ കയറുന്നതായിരിക്കും പിന്നെ പാസ്സ് എടുക്കാൻ വേണ്ടി അവിടെ പ്രത്യേകം പൈസ അടക്കേണ്ടി വരും അതൊക്കെ നിങ്ങളു തന്നായിരിക്കും ചെയ്യേണ്ടി വരുന്നത് വീട് എറണാകുളം എറണാകുളം മാത്രം പോരെയോ മാം അതോ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ നോക്കുന്നുണ്ടോ എറണാകുളം മാത്രം നോക്കുന്നോള്ളൂല്ലേ എറണാകുളം വലിയ കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളാണ് ബോട്ടിലൊക്കെ ആവുമ്പോഴത്തേക്ക് കറങ്ങാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ അല്ലാതെ തന്നെ നമ്മുടെ മറൈൻ ഡ്രൈവ് പോലത്തെ കുറെ സ്ഥലങ്ങളവിടെ ഉണ്ട് പാലസ് അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ നമ്മൾ കാണിക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ കാണിക്കുന്നതായിരിക്കും മാം ഞ മാം ഓക്കേ ഇതെൻറ്റെ വാട്സ്ആപ്പ് നമ്പർ എന്തേലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മാം എന്നെ കോ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം ഓക്കേ താങ്ക് യൂ മാം